ഹലോ ഹലോ സാൾട് റെസ്റ്റോറന്റ് അല്ലേ അത് ഞാൻ ഒരു രണ്ടാഴ്ച മുൻപ് അവിടുന്ന് ഫുഡ് കഴിച്ചായിരുന്നു എനിക്ക് അപ്പോൾ അതിൻ്റെ ബിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായി അത് കമ്പനിയിൽ കൊടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അവർ എന്തിനോ വേണ്ടി ചോദിച്ചു നമ്മുടെ വരുമാനത്തിൻ്റെ എന്തോ ടാക്സിന്റെ എന്തോ സംഭവമാണ് അതിനുവേണ്ടിയാണത് ആ എന്തായിരുന്നു രണ്ട് അൽഫാമും ഒരു ബിരിയാണിയുമാണ് മേടിച്ചത് അല്ല നമ്മൾ വന്ന് കഴിക്കുവാണ് ചെയ്തത് പാർസൽ അല്ല വാങ്ങിച്ചത് ഓക്കെ സാർ അപ്പോൾ അതിനുവേണ്ടിയായിരുന്നു

ഞാൻ വന്ന് മേടിക്കണോ അതോ ആ ഞാൻ വന്ന് മേടിക്കാം അത് അപ്പോൾ നാളെ വന്ന് മേടിച്ചാൽ മതിയോ ഓക്കെ സർ ശരി എന്നാൽ